ഹലോ ഇത് കല്ലട ട്രാവെൽസല്ലെ ചേട്ടാ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ബുക്കിങ്ങില് ഞാൻ കഴിഞ്ഞ ദിവസം ട്രിപ്പ് വന്നതായിരുന്നെ ആലപ്പുഴയിലേക്ക് ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് കാണിക്കാനായിട്ട് ഇറക്കിയപ്പഴ്ത്തെ ഇറങ്ങിക്കഴിഞ്ഞ് പുള്ളി നമ്മടെ ഡ്രൈവര് എങ്ങോട്ടോ മാറി വിളിച്ചിട്ട് പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്മള് നമ്മളെല്ലാരൂം ഇവിടെ വന്ന് നില്ക്കുകയാണ് വണ്ടി ലോക്കെയ്ത് വച്ചേക്കുകയാണ് അപ്പോള് പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പുള്ളിയെ ഒന്ന് കോൺടാക്റ്റെയ്യാൻ ശ്രമിക്കാമോ നമ്മള് കുറേ നേരം വിളിച്ചു ഫുള്ളി പുള്ളി കോളെടുക്കുന്നില്ല അപ്പോള് ഒന്ന് പെട്ടെന്നൊന്ന് എന്തേലും ചെയ്യണം പുള്ളിയെ വിളിച്ചിട്ടൊന്ന് നമ്മളെ ഒന്ന് കോൺടാക്ടെയ്യാൻ പറയാമോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടിയിലേക്ക് വരാനോ പറയുകയോ ചെയ്യ് പറയണം ഓക്കെ